ആ അതെ പറഞ്ഞോളൂ ആ ഓക്കേ ആ എത്ര പേരുടെ ഫംഗ്ഷൻ ആണ് മേഡം ഇരുനൂറ് പേരാണോ ആ ആയിക്കോട്ടെ അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് മേഡം ചൂസ് ചെയ്തിട്ടുണ്ടോ ആ ഉണ്ടാവും ആ ഓക്കേ നമുക്ക് റൂംസും അവൈലബിൾ ആണ് അപ്പോൾ ഇരുനൂറ് പേർക്കുള്ള റൂം അല്ലേ നമുക്ക് ഇപ്പോൾ ഒരു പോർഷന് വൺ ട്വൻറ്റി വെച്ചാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇരുനൂറ് പേർക്ക് അല്ലേ പറഞ്ഞത് ആ ഓക്കേ അപ്പോൾ വൺ ട്വൻറ്റി വെച്ച് പേ പേർസണ് ഒരാൾക്ക് നമ്മൾ ചാർജ് ചെയ്യും പിന്നെ ഇത്രയും ബൾക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ചെയ്ത് തരാം പിന്നെ വേറെ റൂംസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും മേടത്തിന് ആവിശ്യം ആയിട്ട് ഉണ്ടാവുമോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണോ എല്ലാം വേണ്ടി വരും അല്ലേ ഓക്കേ പിന്നെ എന്തെങ്കിലും ഔട്ടിംഗ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരണോ ഇവിടുത്തെ സ്പോട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ട് പോവാനോ ആ എന്തെങ്കിലും മീറ്റിംഗ് കാര്യമായിട്ട് അങ്ങനെ വരുന്നതാണോ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ആ ചെയ്തുതരാം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ചെയ്യാം ഓക്കേ അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇരുനൂറ് പേര് ഉറപ്പല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നോക്കിയിട്ട് ഞാൻ എന്തായാലും മേടത്തിനെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്ത് തരാം പിന്നെ ഫാമിലീസ് ആയിരിക്കില്ലേ കുടുതലും അപ്പോൾ റൂംസിൻ്റെ ഡീറ്റൈൽസ് ഒക്കെ നോക്കിയിട്ട് മാഡം എത്ര റൂം വേണ്ടി വരും എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാവോ ആ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി

ആ പിന്നെ വേ ഏ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ആ മെയിൻ ആയിട്ട് അത് തന്നെ ആണ് അല്ലേ ഓക്കെ എന്തായാലും മേഡം വിളിച്ച് കഴിയുമ്പം നമുക്ക് ഏ ആ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് എന്തെങ്കിലും വേണം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കൂടി ചെക്ക് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി മാഡം എന്നത്തേക്ക് ആയിരുന്നു ഫംഗ്ഷൻ ട്വന്റിയത്ത് അല്ലേ പറഞ്ഞത് ആ അപ്പോൾ ഒരു വൺ വീക്കിനുള്ളിൽ അതിന് ഒരു വൺ വീക്ക് മുമ്പ് എങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ട് പറയണം ആ ഓക്കേ മേഡം